ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഹെഡ് ഫോൺ എനിക്ക് നല്ല റേറ്റ് കുറഞ്ഞു കിട്ടി രണ്ടായിരത്തി സംതിങ് രൂപ ആയിട്ടുള്ളൂ ഭയങ്കര അത് ക്യാരി ചെയ്യാൻ അതിൻ്റെ ബോക്സ് ഭയങ്കര ഇഷ്ടമായി എനിക്ക് അങ്ങനെ തിരിയുകയൊന്നുമില്ല നമ്മൾ മുടി അഴിച്ചിട്ട് അതിൻ്റെ ഇടക്ക് കൂടി വെക്കുകയാണെങ്കിൽ ത തട്ടം ഇടുമ്പോൾ ഒന്നും മനസ്സിലാവുകയൊന്നുമില്ല നമ്മൾ ഹെഡ് ഫോൺ എടുത്തുവെച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു ഹെഡ് ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി നല്ല കളറാണ് നല്ല കംഫർട്ടാണ് എനിക്ക് പിന്നെ അധികം അധികം അതിന് പൈസ കുറവാണ് പിന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്താതീ അധിക കാലം കാത്തു നിൽക്കാതെ വേഗം കിട്ടി എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പ്രൊഡക്റ്റ് ഹെഡ് ഫോൺ ഭയങ്കര നല്ലൊരു ഹെഡ് ഫോൺ എനിക്ക് ഇഷ്ടമായി സത്യം പറഞ്ഞാൽ നല്ല ക്യാരി ചെയ്യാനും എല്ലാംകൊണ്ടും നല്ല ഭംഗിയുണ്ട്